പാചകം ചെയ്ത പാത്രത്തിൽ കരി അങ്ങനെ എനിക്ക് ഒരുപാട് ഉണ്ടാവാറില്ലെങ്കിലും ഇടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കരി പിടിച്ച പാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് അത് മിക്കവാറും ഞാന് വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോഴാണ് എന്റെ പാത്രത്തില് കരി പിടിക്കുന്നത് എന്താണെന്നു വച്ചാൽ ആ പാത്രം നമ്മൾ വിറകിൽ നമ്മൾ പാചകം ചെയ്യുമ്പോള് ആ പുക വിറകില് നിന്നുള്ള പുക അതിന്റെ അടിയില് അടിഞ്ഞ് അടിഞ്ഞ് കൂടുകയും അതുവഴി അവിടെ ആ പുക കട്ടിയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് വളരെയധികം പാടാണ് ഭയങ്കരം കഷ്ടപ്പാടാണ് അതൊന്ന് കളഞ്ഞെടുക്കുക എന്നു പറയുന്നത് അത് ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റീല് ഇട്ട് അരച്ച് അരച്ച് ഉരച്ച് ഉരച്ച് കളയും ഒന്നികില് അല്ലെങ്കില് ഇങ്ങനെ ചെയ്യും പുളി വെള്ളവും വെല്ലവും ഇട്ട് ഉരച്ച് ഉരച്ച് കളയും കളയാന് നോക്കും അന്നന്നുള്ള കരി അപ്പപ്പം തന്നെ കളയാന് നോക്കണം ഇല്ലെങ്കിൽ അത് കുറച്ചുംകൂടി കഷ്ടപ്പാടായിട്ട് വരും അല്ലെങ്കിൽ എന്താ വച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ എന്താണ് പിന്നീടുള്ള പാചകം ചെയ്യുമ്പോൾ പിന്നീട് അവിടെ കരി ഇരുന്ന് ആ കരിയിലോട്ട് വീണ്ടും കരി ചെന്ന് അത് ഭയങ്കരം പാടാണ് അതൊന്നും അത് അത് എല്ലാം കൂടി കളഞ്ഞെടുക്കാന് ഭയങ്കര പാടാണ് അങ്ങനെ കരി ഇരിക്കുന്നതും ഒരു നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാന് ഇടയ്ക്ക് ചെയ്യുന്നത് ചാരം കൊണ്ടാണ് സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഈ സ്റ്റീല് പോലുള്ള സ്റ്റീല് പോലുള്ള പാത്രത്തിലാണ് ഇങ്ങനെ കരി വരുന്നത് സ്റ്റീല് അലുമിനിയം പോലുള്ള പാത്രങ്ങളിലാണിങ്ങനെ കരി പിടിക്കുന്നത് അങ്ങനെ വരുന്ന പാത്രത്തിൽ ഞാന് എന്താണ് ചാരം ഉപ്പ് ബേക്കിംഗ് സോഡ എന്നിവയൊക്കെ ചേര്ത്ത് നന്നായിട്ട് ഇട്ട് ഞാന് അത് കഴുകിക്കളയാന് നോക്കും നന്നായിട്ടിങ്ങനെ തേച്ച് ഒരച്ച് നാന്നായി കഴുകും ചാരം തൂക്കുന്നതുവഴി നമുക്ക് രണ്ടുണ്ട് ഗുണം ഒന്ന് കരി പോയി കിട്ടാനും ബാക്റ്റീരിയ എന്തെങ്കിലും ഉണ്ടെങ്കില് അത് പോയി കിട്ടാനും എളുപ്പമാണ് പിന്നീട് നമ്മള് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കും ഒരു ദിവസം മുക്കിവച്ച് ഞാൻ മുക്കിവച്ചിട്ട് എത്ര പോകുന്നത് ഇതിനായി എത്ര ടൈം എടുക്കും എന്നൊന്ന് നോക്കും ആ ടൈമില് ആ ടൈം കഴിയുമ്പോൾ ഞാന് അത് എടുത്ത് കഴുകി കളയുമ്പത്തേനും നമുക്കത് നമ്മുടെ കരി പോകുന്നതായി കാണാം അതുപോലെതന്നെ പിന്നീട് ആ കഞ്ഞിവെള്ളത്തില് മുക്കി വച്ച പാത്രം നമുക്കത് എടുത്ത് അങ്ങ് സോപ്പും കൂടി ഇട്ട് കഴുകിയാല് നല്ല പുതിയ പാത്രമായിട്ട് നമുക്ക് കിട്ടും പിന്നീട് ഞാന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വച്ചാൽ പുളി പുളിയുടെ വെള്ളം പുളിയുടെ വെള്ളം പുളിയുടെ വെള്ളം ചാരം എന്നിവയുമായി മിക്സ് മിശ്രിതമാക്കി അവ പാത്രത്തിൽ തേച്ച് പിടിപ്പിച്ച് കഴുകുകയും ചെയ്യുമ്പോള് നല്ലയൊരു കളറ് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട് കളറും ആ ഒരു കരി പോയിക്കിട്ടാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാറാണ് പതിവ് പിന്നെ കരിക്കലത്തിലൊക്കെ പാത്രം കരിപിടിച്ച കരി മണ്ചട്ടിലൊക്കെ കരിപിടിച്ചാൽ അത് കഴുകിക്കളയാന് ശ്രമിക്കാറില്ല കാരണം എന്താ വച്ചാല് മണ്കലത്തിലൊക്കെ കരി പിടിച്ചാൽ അത് നല്ലതാണ് അതിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷെ സ്റ്റീല് കലത്തില് അത് പിടിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു പിന്നെ കരി എല്ലാ കരി എന്നുപറയുന്നത് മോശമായിട്ടുള്ളതല്ല ചില പാത്രങ്ങള്ക്ക് നല്ലതാണ് കാരണം അതിനൊരു അടിയിലൊരു ഉറപ്പ് വരുത്താനായിട്ട് നല്ലതാണ് എന്നിരുന്നാല് കൂടി ഞാന് എന്റെ പാത്രങ്ങളിൽ കരി വച്ചുകൊണ്ടിരിക്കാന് ശ്രമിക്കാറില്ല